കല്യാണം പോലെ ഉള്ള വലിയ ചടങ്ങുകളിൽ വലിയ അളവിൽ വെള്ളം ക്രമീകരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് മിക്കവാറും നമ്മുടെ നാട്ടിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉള്ളതു കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടാറില്ല ഇപ്പോൾ നമ്മൾ വീട്ടിൽ ആണെങ്കിലും എല്ലാവർക്കും സ്വന്തമായി കിണറുകളും കുളങ്ങൾ ഒക്കെ ഉണ്ട് അതേൽ ഇഷ്ടംപോലെ വെള്ളം അവൈലബിളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രാഥമികമായി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ കല്യാണം നടത്തുന്ന മണ്ഡപങ്ങളിലും ഓഡിറ്റോറിയങ്ങളിൽ ഒക്കെ നമ്മൾ വെള്ളം അവൈലബിളാണ് ലഭ്യമാണ് അതിനോടു ക്കൂടി അതിനങ്ങടെ കൂടിയുള്ള പൈസയാണ് നമ്മൾ അതിന് നൽകുക വാടക ഇനത്തിൽ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ലഭിക്കാത്തിരി ലഭിക്കാത്ത ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ വളരെ ഈസി ഈസിയായിട്ട് വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട് കല്യാണം പോലുള്ള വലിയ ചടങ്ങുകളിൽ ഇടുക്കിനെ സംബന്ധിച്ച് വെള്ളത്തിൻ്റെ ലഭ്യത ഇല്ല ദൗർലഭ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് അതൊരു ക്രിമീകരിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും വരാറില്ല